കല്യാണം പോലുള്ള വലിയ ചടങ്ങുകളില് ഇന്ന് വലിയ അളവിലുള്ള ജല ഉപയോഗമാണ് കണ്ട് വരുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗമാണ് കണ്ടുവരുന്നത്ത് ഇത് നല്ല രീതിയിൽ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ക്രമീകരിയ്ക്കുന്നതിനും ഇന്ന് നമ്മൾ പല മാർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണം ആയിട്ട് പറയുകയാണെങ്കില് പാത്രം കഴുകുന്നതിനും അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതിനും വേണ്ടീട്ടാണ് കൂടുതലായിട്ടും ജലം നമ്മള് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മള് ഒരു വലിയൊരു പാത്രത്തെ അല്ലെങ്കിൽ വലിയൊരു പൂളില് ജലത്തിലാണ് മൊത്തം പാത്രം കഴുകുക അല്ലെങ്കിൽ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിച്ച് സ്പ്രിങ്ക്ളെർ സിസ്റ്റം പോലുള്ള പൈപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പാത്രം കഴുകുന്നത് പണ്ടത്തെ കാലത്തുള്ള പൈപ്പില് അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് ഫോഴ്സില് വെള്ളമടിച്ച് കളയുന്നതിന് പകരം ചെറിയ പൈപ്പുകളിലൂടെ സ്പ്രിങ്ക്ലെർ സിസ്റ്റം എന്ന രീതി ഉപയോഗിച്ച് ജലം എത്തിച്ച് പാത്രങ്ങളുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കുന്ന ക്രമീകരണം ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പൈപ്പിൽ ഉള്ള അമിതമായിട്ടുള്ള ജലം ഒഴുകി പോവു തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊട്ടലും അതുപോലത്തെ ലീക്കിലൂടെ അമിത ജലം ഒഴിവാവുന്നതും നമ്മള് തടയുന്നുണ്ട്